ഈ ചോദ്യത്തിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലായില്ല എങ്കിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാന് സംസാരിക്കാം എന്റെ മുൻപിൽ മലയാള ഭാഷ സംസാരിക്കാൻ അറിയാത്ത ഒരു വ്യക്തി വന്ന് കഴിഞ്ഞാല് ഞാന് ആദ്യം ശ്രമിക്കുന്നത് അയാൾക്ക് അറിയാവുന്ന ഭാഷ എനിക്ക് അറിയാമോ എന്ന് ഞാൻ നോക്കുകയുള്ളു അല്ലാതെ മലയാളം അറിയാത്ത ആളുടെ മുമ്പിൽ ഞാൻ മലയാളം വാക്കുകള് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് കൊണ്ട് തന്നെ മലയാളം അറിയാത്ത ഒരു വ്യക്തി എന്റെ ഫ്രണ്ടില് വന്നാല് ഞാന് അയാള്ക്ക് അറിയാവുന്ന ഭാഷ എനിക്ക് അറിയാമോന്നെ ഞാന് നോക്കുകയുള്ളൂ ഫോര് എക്സാബില് അയാള്ക്ക് ഇഗ്ലീഷറിയാമെങ്കില് ഞാന് ഇംഗ്ലീഷില് സംസാരിക്കും അയാള്ക്ക് ഹിന്ദി അറിയാമെങ്കില് ഞാന് ഹിന്ദി സംസാരിക്കും അയാള്ക്ക് തമിഴ് അറിയാമെങ്കിൽ ഞാന് തമിഴ് സംസാരിക്കും അവിടെ ഞാൻ എന്റെ ഭാഷ ഉപയോഗിക്കുന്നത് ഒരു ശരിയായ കാര്യമാണോന്ന് എനിക്ക് അറിയില്ല പക്ഷേ അയാളുമായി കൂടുതല് നേരം സംസാരിച്ച് കഴിയുമ്പോള് അയാള്ക്ക് മലയാളം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കില് ഞാൻ അയാളെ മലയാള ഭാഷകള് പഠിപ്പിക്കും ഫോർ എക്സാബിള് സുഖമാണോ കഴിച്ചോ എന്തൊക്കെയുണ്ട് ഇതൊക്കെ ഞാന് പഠിപ്പിച്ച് കൊടുക്കും അല്ലാതേ ഒരാളെ ഒരു പ്രാവശ്യം കണ്ട ഉടനെ ആ ഒരു ഹിന്ദിക്കാരൻ എന്റെ മുമ്പിൽ വന്നിട്ട് നീ സുഖം നിനക്ക് സുഖമാണോടാ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ അല്ലേൽ ഒരു ഇംഗ്ലീഷ്കാരന് വന്നിട്ട് ഹൌ ആര് യു എന്ന് ചോദിക്കുന്നതിന് പകരം നിനക്ക് സുഖമാണോന്ന് ചോദിച്ചാൽ അയാള് വാട്ട് ആര് യു ടോകിംഗ് ഐ ഡോൺ അണ്ടെര്സ്റ്റാന് യു എന്നല്ലേ പറയുള്ളൂ സോ ഈ കൊസ്റ്റ്യന്റെ ഉത്തരം എന്ന് പറയുന്നത് ഞാന് എന്റെ എൻ്റെ ഞാന് അവിടെ ഉപയോഗിക്കുന്ന ആംഗ്യ ഭാഷയായിരിക്കും രണ്ട് പേര്ക്കും അറിയാം എനിക്ക് അറിയാവുന്ന ഭാഷ അയാള്ക്കും അയാള്ക്ക് അറിയാവുന്ന ഭാഷ എനിക്കും അറിയില്ല എങ്കില് ഞാൻ ആംഗ്യ ഭാഷയെ ഉപയോഗിക്കുള്ളൂ മലയാള ഭാഷ അവിടെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് പറയുമെന്ന് അറിയില്ല പിന്നീട് അയാളുമായി പരിജയപ്പെട്ടതിന് ശേഷം അയാള്ക്ക് മലയാള ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കില് അയാളെ ഞാന് മലയാള ഭാഷ പഠിപ്പിക്കും അങ്ങനെയാണെന്റെ ഭാഷയെ ഞാന് പരിപോഷിപിക്കുന്നത് നന്ദി